ഹലോ ചേട്ടാ ചേട്ടന് ച് സോഷ്യല് വര്ക്കൊക്കെ ചെയ്യുന്നൊരു സാമൂഹിക പ്രവര്ത്തകനാണല്ലോ അപ്പോൾ ചേട്ടന്റെ വര്ക്കിന്റെ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആ വര്ക്കെങ്ങനെയാണ് മുന്നോട്ടു കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യത്തിൽ ഉള്ള വിശദാംശങ്ങളൊന്നു പങ്കു വെക്കാമോ ഞാന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹിക ക്ഷേമ പ്രവര്ത്തനത്തിന് നേതൃത്ത്വം നല്കുന്ന ചാള്സ് ചങ്ങനാശ്ശേരി സോഷ്യല് സര്വ്വീസ് സൊസൈറ്റിയുടെ മേഖലാ കോര്ഡിനേറ്ററായിട്ടാണ് പ്രവര്ത്തിക്കുന്നത് കോട്ടയം കുടമാളൂര് മേഖലയുടെ കോര്ഡിനേറ്ററാണ് എനിക്ക് പത്ത് പതിനഞ്ച് യൂണിറ്റുകളാണുള്ളത് ഞാൻ ആഴ്ചയില് ഒന്ന് എല്ലാ യൂണിറ്റുകളും സന്ദര്ശിക്കുന്നു നമുക്ക് ചാള്സിനു പ്രത്യേകമായിട്ട് പ്രാദേശിക പ്രവര്ത്തനങ്ങളിലും ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതികളാണ് മൈക്രോ ക്രെഡിറ്റ് യൂണിയന് പ്രോഗ്രാം സ്വാശ്രയ സംഘങ്ങൾ അതില് മൈക്രോ ക്രെഡിറ്റ് യൂണിയന് പ്രോഗ്രാം എന്നു പറഞ്ഞാല് നമുക്ക് ഓരോ യൂണിറ്റിനും കമ്മ്യൂണിറ്റി ഓര്ഗനൈസേർസുണ്ട് അവർ ഓരോ വീടുകളിലും പോയി അൻപത് നൂറ് അഞ്ഞൂറ് ഒക്കെ കളക്റ്റ് ചെയ്ത് അത് മൊത്തമായിട്ട് യൂണിറ്റില് കൊണ്ട് അടയ്ക്കുന്നു അതില് നിന്ന് തീരെ പാവപ്പെട്ടവര്ക്ക് അവര്ക്കു സ്വയം തൊഴിലിനും ആ വിദ്യാഭ്യാസ ആവശ്യങ്ങള്ക്കും ഒക്കെയായിട്ട് അഡ്വാൻസ് കൊടുക്കുന്നു നിസ്സാര ഇന്സെൻ്റീവ് വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിക്ഷേപകര്ക്കു നാലു ശതമാനം ഇന്സെൻ്റീവ് അങ്ങോട്ടു കൊടുക്കുന്നു ഇതിൽ നിന്നു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ഓരോ യൂണിറ്റുകളിലും ചാരിറ്റി പ്രവര്ത്തനങ്ങൾ ചെയ്യുന്നത് സ്വയം തൊഴിൽ ചെയ്യാനും പാവപ്പെട്ടവര്ക്ക് മരുന്ന് മേടിക്കാനും വീടു വെച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങള് ഓരോ യൂണിറ്റുകളിലും ചെയ്യുന്നുണ്ട് അങ്ങനെ അതാണ് ഒരു പ്രവര്ത്തനം രണ്ടാമത്തെ പ്രവര്ത്തനമാണ് സ്വാശ്രയ സംഘങ്ങളുടെ പ്രവര്ത്തനം സ്വാശ്രയ സംഘങ്ങള് എന്നു പറഞ്ഞാല് ഓരോ ഇപ്പം പ്രാദേശികമായിട്ട് ഒരു ഏരിയയില് താമസിക്കുന്ന പത്തു മുതല് ഇരുപതു വരെയുള്ള പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ സംഘമാണ് ഒരു സ്വാശ്രയ സംഘം എന്നു പറയുന്നത് അവർ ഒന്നിച്ചു കൂടി ആഴ്ചയിലൊരിക്കല് ഒന്നിച്ചുകൂടി അവരുടെ പ്രവര്ത്തനങ്ങള് വിലയിരുത്തി ഓരോരോ ചര്ച്ചകള് നടത്തുകയും സ്വയം തൊഴിലിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും സ്വയം എന്തെങ്കിലും സംരംഭങ്ങള് തുടങ്ങാനും ഒക്കെയായിട്ട് അവിടെ ചര്ച്ചകള് നടത്തുകയും അതിനുവേണ്ടി അവർ ഒരു നിശ്ചയ സംഖ്യ നിക്ഷേപമായി എല്ലാ ആഴ്ചയിലും സ്വീകരിക്കുന്നു അതില് നിന്ന് ആവശ്യക്കാര്ക്ക് ഈ നേരത്തേ പറഞ്ഞതു പോലെ സ്വയം തൊഴിലിനും വിദ്യാഭ്യാസാവശ്യങ്ങള്ക്കും വീട്ടിലെ ആവശ്യങ്ങള്ക്കുമായി ഈ എന്തെങ്കിലും വരുമാനദായകമായ പദ്ധതികള് ആരംഭിക്കുന്നതിനു വേണ്ടി അവര്ക്ക് നമ്മൾ അഡ്വാന്സ് കൊടുക്കുന്നു ആ സ്വാശ്രയ സംഘങ്ങള്ക്ക് അത് അവർ നിശ്ചിത സമയത്ത് തിരിച്ചടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് ഉള്ള അവരുടെ പുരോഗതി ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിതിനെ സ്വാശ്രയ സംഘങ്ങൾ ഇത്ര സാമ്പ് സാമ്പത്തികമായും സാമൂഹികമായും അങ്ങനെ എല്ലാ വിധത്തിലും അവര്ക്കൊരു പുരോഗതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളിങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് സ്വാശ്രയ സംഘം എനിക്ക് ഈ രണ്ടു മേഖലകളിലുമായിട്ടു തൊണ്ണൂറോളം സ്വാശ്രയ സംഘങ്ങള് ഇന്ന് ആയിരത്തിലധികം അംഗങ്ങള് പ്രവര്ത്തിക്കുന്നുണ്ട് ഇതു കൂടാതെ തന്നെ കുറേ എ ഫാമിലി സേവേ ഫാമിലി എജ്യൂക്കെയർ അങ്ങനെ വിവിധതരം പദ്ധതികള് ചാള്സിന്റെ കീഴിൽ ഉണ്ട് അതിനെല്ലാം ബെനിഫിഷ്യറീസും ഞങ്ങള് കണ്ടെത്തും ബെന്ഫാക്റ്റേസിനും ഞങ്ങള് കണ്ടെത്താറുണ്ട്